എൻ്റെ അടുക്കളയിലിപ്പോഴുള്ള ഇലക്ട്രിക് സാ ഉപകരണങ്ങൾ മിക്സി ഗ്രൈന്റർ ഗ്യാസ് ഓവനെന്നിവയാണ് മീ മിക്സിയിൽ നമ്മൾ കറിക്കൊക്കെ അരക്കാൻ അരക്കാനും ഒക്കെ ഉപയോഗിക്കും ഗ്രൈന്ററാണെങ്കിൽ നമ്മൾ മാവുകളരയ്ക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും ഗ്യാസാണെങ്കിൽ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് നമുക്ക് ഗ്യാസില്ലെങ്കിലൊന്നും കുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ രാവിലത്തെ തൊട്ട് വൈകിയിട്ട് വരെയുള്ള എല്ലാ ഫുഡ്ഡുകളും ജൂസുകളുമെല്ലാം പ്രിപ്പെയർ ചെയ്യുന്നത് ഗ്യാസിലൂടെയാണ് ഓവനാണെങ്കിൽ വല്ലതുമൊക്കെ ചൂടാക്കാനാക്കിയിട്ടൊക്കെ ഉപയോഗിക്കും പിന്നെ കേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബേയ്ക്ക് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇത് ലഭ്യമല്ലാത്ത പഴയ കാര്യങ്ങൾ പഴയ സമയത്ത് അതു വളരെ പ്രയാസമാണ് നമുക്ക് ഗ്യാസില്ലാതെ അടുപ്പ് കത്തിക്കുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിൽ വിറകു ശേഖരിക്കണം തന്നെയല്ല ഭയങ്കര ടൈം ഒത്തിരി എടുക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ് പഴയ പഴയ കാലത്തെ ബാർ ജീവിത രീതിയിലൊരുപാട് സമയമെടുക്കും അപ്പം ഇച്ചിരി കഷ്ടപ്പാടും ഭയങ്കരമായിട്ടു കൂടുതലുണ്ട് ഗ്യാസില്ലാത്ത അവസ്ഥയെന്നു പറയുമ്പം നമ്മൾ വിറകു ശേഖരിച്ച് ഉണക്കി ഒക്കെ കൊണ്ടു വന്നു നേരത്തേ നമ്മൾ നേരത്തെ കാൽക്കുലേയ്റ്റ് ചെയ്തു വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് പ്രി ഫുഡ് പ്രിപ്പെയർ ചെയ്യാൻ പറ്റത്തുള്ളു പിന്നെ ഒരുപാട് സമയമെടുക്കും സമയമെടുത്ത് ഇതു കത്തി വരാനും പിന്നെ കുറച്ച് കാര്യങ്ങളായിട്ട് എന്തെങ്കിലും ചെറിയ കാപ്പിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ഗ്യാ ഗ്യാസില്ലെങ്കിൽ ഭയങ്കര പാടാണ് കാര്യം ചെറിയ പാത്രമൊക്കെ വിറകടുപ്പിലൊക്കെ എടുത്തു ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ് ഭയങ്കര പ്രയാസവുമാണ് കത്തിപ്പിടിപ്പിക്കാൻ പ്രയാസമാണ് അതു കഴിഞ്ഞു പാത്രമെല്ലാം കരിയാകും അതെല്ലാം വൃത്തിയാക്കാനുമൊക്കെ ഭയങ്കര പ്രയാസമാണ് പഴയ ജീവിതരീതി നിങ്ങൾക്കു നല്ല പ്രയാ പ്രയാസമാണ് ഇപ്പോഴത്തെ ഈ ജീവിത രീതി അനുഭവിച്ചു നമ്മളിതു പിന്തുടർന്നു കഴിഞ്ഞിട്ട് നമ്മൾക്ക് ആ ഗ്യാസില്ലാതെ ഉള്ള ഒരവസ്ഥയെന്നു പറയുന്നത് ഭയങ്കര പ്രയാസമാണ് പിന്നെ ഓവനാണെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ഒന്നിച്ചു ചൂടാക്കാനും അതൊക്കെ പറ്റുന്നുള്ളു വളരെ ഉപകാരപ്രദമാണ് അപ്പം ഓവനില്ലാത്ത അവസ്ഥയെന്നു പറയുമ്പം നമ്മളോരോന്നും ഓരോ പാത്രത്തിലെടുത്തു ചൂടാക്കുമ്പം ഒരുപാട് പാത്രം വാഷ് ചെയ്യാനും അങ്ങനെ നമുക്കൊരുപാട് ടൈം നഷ്ടപ്പെടുന്നാണ് പഴയ ജീവിത രീതിയെന്നു പറയുന്നത് ഒരുപാട് കഷ്ടപ്പാടുമാണ് നമുക്ക് എഞ്ചോയ്മെൻറ്റ് കിട്ടുന്ന ക കാര്യത്തിലേക്കു പോകാൻ നമുക്ക് സമയം കിട്ടാതെ വരും പഴയൊരു ജീവിത രീതിയാകുമ്പം ഇത്രയും ജോലികൾ കൂടുതൽ കൂടുതൽ വരും അതു കാരണം നമുക്ക് സമയം കിട്ടില്ല ഇപ്പം പുതിയ ജീവിത രീതിയിൽ മിക്സിയൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൈൻ്റൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഉപകരണങ്ങളുണ്ടെങ്കിൽ നമുക്ക് കുറച്ചു സമയ മിച്ചവും കിട്ടും കുക്കിങ്ങെല്ലാം കഴിഞ്ഞതിനു ശേഷം നമുക്കത് എൻജോയ്മെൻഡിനും എൻ്റർടെയിമെൻറ്റിനും ഉപയോഗിക്കാം അപ്പം പുതിയ ജീവിത രീതിയാണ് എനിക്ക് നല്ല ഈ ഉപകരണങ്ങളൊക്കെ ഉള്ള ഇപ്പോഴത്തെ ജീവിത രീതിയാണ് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് പഴയതിന് അതിന്റ്റേതായിട്ടുള്ള നന്മയുണ്ടായിരിക്കാം പക്ഷെയെങ്കിൽ ഇപ്പം എനിക്ക് പുതിയ ജീവിത രീതിയാണ് കൂടുതൽ താത്പര്യമുള്ളത്